എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ജോലി രാവിലെ തുടങ്ങുന്ന അടുക്കളയിൽ പണിയെടുക്കാൻ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ അതുപോലത്തന്നെ വീട് അടിച്ച് വാരുക തൂത്ത് പാത്രം കഴുകി വക്കുക കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ എപ്പോഴും പിന്നീട് ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റതാണ് ഇനി വൈകുന്നേരത്തെ ഇതാണ് പ്രധാനപ്പെട്ട പണി പിന്നെ എനിക്ക് കൃഷിയോട് ഭയങ്കര താൽപ്പര്യമാണ് അതുകൊണ്ട് കൃഷിയെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് കൊണ്ട് കൃഷിപ്പണിയും ചെയ്യാറുണ്ട് എന്തെങ്കിലും പച്ചക്കറികൾ നടുക പിന്നെ വാഴ വെക്കുക ചെടികൾ ഉണ്ടോ ചെടികൾ വച്ച് അവയെ പരിപാലിക്കുക പിന്നെ പഴവർഗ്ഗങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നട്ട് പിടിപ്പിക്കുക ഇങ്ങനെയുള്ളത് തന്നെ പ്രധാനപ്പെട്ട പണികൾ കൃഷിയെന്ന് പറയുമ്പോൾ കവുങ്ങ് തെങ്ങ് കശുമാവുണ്ട് റബ്ബറുണ്ട് നെല്ല് നെല്ലുണ്ട് അതിന് വെള്ളമൊഴിക്കണം പിന്നെ റബ്ബറിൻ്റെ പണിയായിട്ട് അങ്ങ് അങ്ങനെ പോകുന്നില്ല തെങ്ങിനും കവുങ്ങിനും വെള്ളം അടിക്കും പൈപ്പ് പിടിച്ച് വെള്ളമടിക്കണം പിന്നെ വെള്ളം കൊണ്ട് പോവുന്ന ഒഴിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള പണികളുണ്ട് അടുക്കളപ്പണി എടുക്കും ഒരു ഒരു ദിവസത്തെ മുക്കാൽ സമയവും അടുക്കളയിലാണ് മറ്റ് മറ്റ് ജോലിയൊന്നുല്ല കയ്യിൽ കാശ് കിട്ടേണ്ട ജോലിയൊന്നും ഇല്ല പോയി ചെയ്യുന്ന ജോലിയൊന്നും ഇല്ല എല്ലാം വീട്ടിലുള്ള ജോലി തന്നെയാണ് പിന്നെ തൊഴിലുറപ്പ് പണി അങ്ങനത്തേതിന് ഒന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ വരുമാനം കയ്യിൽ കിട്ടുന്നത് കുറവാണ് കുട്ടികൾക്കുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് ചെറിയത് ചെറിയ മകനുണ്ട് അവനെ വച്ച് പഠിപ്പിക്കുന്നത് അതൊരു ജോലി തന്നെയാന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല അതുകൊണ്ട് തന്നെ കുറേ സമയം പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഒരു പ്രധാനജോലിയായിട്ടുതന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എത്ര പണിയെടുത്താലും നമുക്ക് ഒരുങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ജോലി തീരണ സമയവുമില്ല കൃഷീന്ന് പറയുമ്പോൾ രാവിലെ പിന്നെ വാഴ കൃഷിയാണെങ്കിൽ അതിന് വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്കിട്ട ജോലിയാണ് പിന്നെ വൈകുന്നേരം ഉച്ചസമയത്ത് ചോറുണ്ണാനാവുമ്പോൾ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉച്ചസമയത്തുള്ള കുറച്ച് റെസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും അതെല്ലാം വൈകുന്നേരമാന്ന് പിന്നെ കോഴികുട്ടികൾ കോഴി ഉണ്ട് അതിനെ അതിന് സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതിന് തീറ്റ കൊടുക്കുക പിന്നെ അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട് പിന്നെ പട്ടണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം ഗവൺമെൻറ് സ്കൂളിലാണ് ഒന്ന് തൊട്ട് പത്ത് വരെ പെരിയ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു പഠിക്കുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഓരോ വർഷം പോകുന്ന കണക്കെ ആഗ്രഹങ്ങളും മാറി മാറി വന്നു പക്ഷേ ഒന്നും ഫലത്തിലെത്തിയില്ലാന്നേയുള്ളൂ ആദ്യം ഒന്ന് പഠിക്കുമ്പം തോന്നും ഒരു ടീച്ചർ നല്ലൊരു ടീച്ചറെ കാണുമ്പോൾ ടീച്ചറാകണമെന്ന് തോന്നും പക്ഷെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഓരോരോ വർഷം കഴിയുമ്പോൾ ഓരോരോ ജോലിയോടുള്ള മോഹാമാണ് ഒരുപാട് മോഹങ്ങളായിട്ട് പഠിച്ചു പക്ഷേ അവസാനവസാനാകുമ്പോൾ ഒന്നൂല്ല ടീച്ചറാകണമെന്ന് ആദ്യമൊക്കെ ടീച്ചറാകണമെന്നുള്ള ഭയങ്കര മോഹമായിരുന്നു ഇഷ്ടപ്പെട്ട ടീച്ചറെ കാണുമ്പോൾ അവരെ പോലെ നല്ലൊരു ടീച്ചറാകണമെന്ന് ഒരു മോഹമുണ്ടായിരുന്നു അത് പഠിച്ചൊരു ടീച്ചറായിട്ട് ജോലി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലൊരു വക്കീലാകണമെന്ന് എന്നുള്ളൊരു മോഹമായി അത് പിന്നേയും പിന്നേയും ആ മോഹങ്ങളൊക്കെ പോയി പിന്നെ കോളേജിൽ പോയി കോളേജിൽ പഠിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോഴുണ്ട് കുറച്ച് പോകുമ്പം തന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു വീട്ടിൽക്കൊണ്ടു വന്നിട്ടാകുമ്പോൾ വീട്ടിൽ ജോലിയായി പിന്നെ ഒന്നും പഠിക്കാൻ പോകാതായി അതുകൊണ്ട് എല്ലാ മോഹങ്ങളും അവസാനം കൃഷിയെന്ന മോഹത്തിലേക്കങ്ങ് എത്തി ഇപ്പോൾ രണ്ട് വീട്ടിലും കൃഷിയുണ്ടായത് കൊണ്ട് ആ കൃഷി തന്നെ ചെയ്യുന്നതാണ് താൽപ്പര്യം കാണുന്നത് അതൊരു ജോലി ആയിട്ട് എടുത്ത് കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ വീട്ട് പണിയുണ്ടാകുന്നതുകൊണ്ട് അത് നമ്മൾ വിചാരിച്ച കണക്കേ കൊണ്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ കൃഷി ചെയ്താൽ നമുക്കൊന്നും ലാഭം കിട്ടുന്നില്ല കൃഷി ചെയ്ത് നമുക്കൊരു സമ്പാദ്യം അല്ലെങ്കിൽ നമ്മളെ മുമ്പോട്ടുള്ള ജീവിതത്തിന് കൃഷി മാത്രം ആയത് കൊണ്ട് നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു നമ്മൾ ജോലീന്ന് പറയുമ്പോൾ ആ കൃഷീനെ ജോലിയെന്ന് പറയാൻ പറ്റുന്നില്ല നമ്മൾ എത്ര കണ്ട് അധ്വാനിക്കുന്നുണ്ടോ അതിൻ്റെ കാൽ ഭാഗം മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഫലം കിട്ടുന്നുള്ളൂ ഒന്നുകിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയായിട്ട് കൃഷി ആക്കീട്ടെന്നാൽ ഇപ്പം തന്നെ തേങ്ങക്ക് വില കുറവാണ് അതുപോലെ തന്നെ കവുങ്ങ് കവുങ്ങ് അതിന് നമുക്ക് അടക്ക ചെറിയ കുഞ്ഞടക്ക താഴേക്ക് പോകും അതിനെ നമ്മൾ അതിനിടുന്ന വളത്തിൻ്റെ പകുതി പൈസ പോലും നമുക്കതിൻ്റെ ഫലം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ജോലിയായിട്ട് മാറ്റിയെടുക്കാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് പോയി ഒരു കടേ കടയിൽപ്പോയി ജോലി ചെയ്യണമെങ്കിൽ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുക അല്ലേൽ ഒരു ഗവൺമെൻറ് ജോലിയോ അതുപോലെ നമുക്കൊരു വരുമാനം ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല നമ്മൾ മുതൽ മുടക്കിയാൽ അതിൻ്റെ പകുതി പൈസ പോലും നമുക്ക് ആദായം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ജോലി പ്രത്യേകിച്ചൊരു ജോലി കൃഷീന്നുള്ളൊരു ജോലീന്ന് പറയാൻ പറ്റില്ല ഈ കൃഷി ജോലി അല്ലാത്ത കൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലിക്കായി പോകുന്നത് പഠിക്കുമ്പോൾ ഉണ്ടായ മോഹങ്ങളൊന്നും ലാസ്റ്റ് പഠി തീർത്തിട്ടായപ്പോഴേക്കും പഠിച്ച് കയറി പകുതിയിലെത്തുമ്പോഴേക്കിന് ആ മോഹങ്ങളെല്ലാം പോയി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയില്ലെങ്കിൽ പോലെ ബുദ്ധിമുട്ട് കാണുമ്പോൾ തോന്നും പഠിച്ച് നല്ലൊരു ജോലി കിട്ടീന്നെങ്കിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാമെന്നുള്ള തോന്നിയിരുന്നു ഇപ്പോൾ രണ്ടും ഇല്ലാത്തൊരവസ്ഥയായി പഠനവുമില്ല ജോലിയും ഇല്ല ഇപ്പോൾ എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക പഠിച്ച് നന്നായി ജോലി ചെയ്ത് അവരവരുടെ സ്വന്തം വരുമാനത്തിൽനിന്ന് തന്നെ ജീവിക്കാനുള്ളൊരു ജോലി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വരെ എത്തി കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂവെന്ന് പക്ഷേ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മൾ നമ്മളെ കരുതുന്ന പോലെ തന്നെ നമുക്കത് കിട്ടണമെന്നില്ല കാശായാലും എന്നും നമ്മൾ വരുന്ന വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടണമെന്നില്ല നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ പോലെ ആരും നല്ലൊരു ജോലിയില്ലാതെ എന്നാലൊന്ന് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് നല്ലൊരു ജോലി നല്ലൊരു ജോലിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ സാധനത്തിനും വില കൂടി വരുന്നതല്ലേ അപ്പം നമുക്കും നല്ലൊരു ജോലി വേണം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സുഖമായിട്ട് ജീവിക്കണം ആദ്യം തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് നന്നായിട്ട് ബോധവാന്മാരാണ് എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുൻ കൂട്ടിയെല്ലാം പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലീനേക്കുറിച്ച് ഇതേ വർഷം മാറുന്ന കണക്കുതന്നെ ഇപ്പോൾ ഒരു വർഷം മാറുന്ന കണക്കേ ഓരോരോ ജോലിനേക്കുറിച്ച് വിചാരിച്ച് അവസാനം ഒന്നൂല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് എൻ്റെ ജോലി മോഹം അതിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ അടുക്കളേ അടുക്കളയിലെ പണി അതൊരു ജോലിയാണ് പക്ഷേ നമ്മൾ ജോലിയെന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അടുക്കളയിലെടുക്കുന്ന പണി ജോലീടത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഇല്ലായെന്നാണ് എൻ്റെ അഭിപ്രായം അടുക്കളയിൽ രാവിലെ തുടങ്ങുന്നു പണി അത് രാത്രിയിൽ കിടക്കുന്നത് വരെ ജോലി തന്നെയാണ് ഒരു റെസ്റ്റില്ലാത്തൊരു ജോലിയാണ് അടുക്കളപ്പണി പറയുമ്പം നിസ്സാരമായിരിക്കും പക്ഷേ അടുക്കളയിലെടുക്കുന്ന പണി നമുക്ക് എടുക്കുന്നവർക്കേ അറിയൂ ബുദ്ധിമുട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു അടുക്കളപ്പണിയായിട്ട് നിൽക്കരുത് അവർ നമ്മൾ വേറെ പെട്ടന്ന് ഒരുക്കീട്ട് അത്യാവശ്യം എല്ലാവരും ജോലിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും സഹായിച്ച് പെട്ടന്ന് ഒരുക്കീട്ട് നമുക്ക് വരുമാനം കിട്ടുന്നൊരു ജോലി അത് ഏതുമായിക്കോട്ടെ ഗവൺമെൻറാകണമെന്നില്ല പ്രൈവറ്റാവാണമെന്നില്ല സ്വയം തൊഴിലായാലും നമുക്ക് നല്ലൊരു ജോലി വരുമാനം കിട്ടുന്നൊരു ജോലി ആണെന്ന് പറയുന്നു ഇപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടുന്നു ഇപ്പം ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ടാവുന്നു ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് ഇപ്പം പറഞ്ഞ് തരാനും ഒക്കെ ആൾക്കാർ കുറവായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം നമുക്ക് ഏത് ഏത് മാധ്യമത്തിൽ കൂടി നോക്കിയാലും ജോലി അവസരങ്ങൾ കണ്ട് പിടിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി വാങ്ങിക്കുക എന്നത് എല്ലാവരുടേയും ഒരു എല്ലാവരും ഒരു നല്ലൊരു ജോലി നല്ലൊരു ജോലി വാങ്ങിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ പറയുന്നു